ആ ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ട്ടപ്പെട്ട കായിക താരം എന്ന് പറയുവാണെങ്കിൽ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാള്ഡോയിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുള്ളി എന്ന് പറയുമ്പോൾ പുള്ളീനെ ഇഷ്ട്ടപ്പെടാനുള്ള കരണം എന്ന് വെച്ചാൽ വെള്ളി തന്നെ ഏറ്റവും ബെസ്ററ് പ്ലെയറായിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കരുതുന്നത് കാരണം ഏറ്റവും ഉയരത്തിൽ ചാടി എന്താ പറയുക ഫുട്ബോൾ കൾട്ട് ചെയ്യാനും ഉള്ള കാര്യങ്ങളും പ്ലേ അതുപോലെ ഒറ്റയ്ക്ക് അവിടൊരു ബോളൊക്കെ കയറ്റി കൊണ്ട് പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ അദ്ദേഹം വലിയൊരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ അത്രനല്ല കളിക്കാരനാണ് പിന്നെ ഇദ്ദേഹതിനെ എനിക്ക് അഥവ പുള്ളിയെ നേരിട്ട് കാണാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാന് എന്താ പറയുക അദ്ദേഹത്തിനോട് ഒരു സെൽഫി എടുത്തോട്ടെന്നാണ് ചോദിക്കുക കാരണം എനിക്ക് പുള്ളിയുടെ ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പുള്ളിനോട് നേരിട്ട് കാണുവാണെങ്കിൽ ചോദിക്കുകയുള്ളു പിന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയുക എല്ലാ കളികളും ഞാൻ മിസ്സ് ചെയ്യാതെ കാണാറുണ്ട് കാരണം അദ്ദേഹം അത്ര വിദഗ്ധനായ എന്താ പറയുക അത്രയ്ക്ക് പ്രശസ്തി ഉള്ളൊരു വ്യക്തിയാണ് പുള്ളി നല്ല രീതിക്ക് കളിക്കാനൊക്കെ അറിയാവുന്നൊരു ആളാണ് അദ്ദേഹം അതുകൊണ്ടു തന്നെ എനിക്ക് പുള്ളിനോടൊരു ആരാധന പ്ര പ്രത്യേക തരത്തിലൊരു ആരാധന ഉണ്ടെന്ന് ഞാൻ പറയുന്നു